ഞാനൊരു കുട്ടനാട് സൈഡിൽ താമസിക്കുന്നൊരാളാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ കുറച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്ന് അറിയാം നമുക്ക് വേണമെങ്കില് ഈ ചുണ്ടൻ വള്ളങ്ങള് പോലെതന്നെ കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹൗസ് ബോട്ട് അപ്പോള് അതിൻ്റെ ഇങ്ങനെ മിനിയേച്ചറുകള് വേണമെങ്കില് ചെയ്യാം അതുപോലെതന്നെ ഈ കുഞ്ഞ് ഷാപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മിനിയേച്ചറുകള് ചെയ്യാം പിന്നെന്താ ഇപ്പാ വിവിധ കലാരൂപങ്ങളൊക്കെയുണ്ട് അപ്പോള് ആ കലാരൂപങ്ങളെ കുറിച്ചിട്ടുള്ളത് മിനിയേച്ചറുകൾ ചെയ്യാം അതുപോലെ ഒരുപാട് ഇതുണ്ട് അതൊക്കെ നമുക്ക് ഇതിന് ചെയ്യാവുന്ന വ്യത്യസ്ത കലാരൂപങ്ങള് എല്ലാം കഥകളി പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാവുന്ന വളരെ ഭംഗിയായിരിക്കും പിന്നെ എൻറ്റൊരഭിപ്രായത്തില് അത് കൂടുതൽ മനോഹരാകണമെങ്കില് ഈ ഡിഗ്രിഡബിളായിട്ടുള്ള വെയിസ്റ്റും സംഭവങ്ങളും ഉണ്ടല്ലോ എന്താണു പറയുക ഈ കുപ്പി കുപ്പിയും പാട്ടപോലുള്ള സംഭവങ്ങളൊക്കെ വച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് നമുക്ക് ഒരു ഇൻറ്ററസ്റ്റ് കൂടും അതിൻ്റെ ആ ഒരു വേയ്സ്റ്റാണെങ്കിലും നമ്മളത് ചെയ്തു ഒരു ഭംഗിയായിട്ട് ചെയ്തുകഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ വർദ്ധിക്കത്തേ ഉള്ളൂ